ഞങ്ങളുടെ പത്രത്തിൽ സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങൾ നീതി യുക്തമായാണോ ചർച്ച ചെയ്യപ്പെടാറുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നും എല്ലാ കാര്യങ്ങളും നീതി യുക്തമായിട്ടല്ല ചർച്ചചെയ്യപ്പെടുന്നത് നമ്മുടെ പത്രത്തിലെ സാമൂഹ്യമായ കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ അത്യാവശ്യമില്ലാത്ത രാഷ്ട്രീയപരമായ കാര്യങ്ങളും അങ്ങനെ അത്യാവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലാതെ സാംസ്കാരിക വിഷയങ്ങൾ കുറേയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കുറച്ച് കാണുന്നു പോലും ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട് അപ്പോൾ നീതിയുക്തമായിട്ട് അല്ല ചർച്ച ചെയ്യപ്പെടുന്നുള്ളത് എന്നാണ് നമുക്ക് പറയേണ്ടി വരുന്നത് കാരണം ഈ പത്രങ്ങൾ എല്ലാം ഒരു ഏതെങ്കിലും ആളുകളെ സന്തോഷിപ്പിക്കുക ആ ഒരു അർത്ഥത്തിലല്ലാതെ കൃത്യമായിട്ട് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ അവരത് പരിഗണിക്കുന്നില്ല നീതി യുക്തമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ